ഇരുപത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ട് എട്ട് രണ്ടായിരത്തി ഏഴ് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഒൻപത് നാല് നാല് രണ്ടായിരത്തി പതിനെട്ട്